നമ്മളൊരു സൈക്കിൾ യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നമ്മള് സെലക്ട് ചെയ്യണം ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ ഏതെല്ലാം രാജ്യങ്ങള് അല്ലെങ്കിൽ ഏതെല്ലാം ജില്ലകളിലൂടെ നമ്മൾ കടന്നു പോകും ആ കടന്നു പോകുന്ന ജില്ലകളില് എന്തെല്ലാം കാണാനുണ്ട് എന്തൊക്കെ കാഴ്ച്ചകൾ ഉണ്ടെന്ന് നമ്മള് എല്ലാം ഗൂഗിൾ ഓൺലൈൻ മാപ്പിങ് വഴി കണ്ട് എല്ലാം വ്യക്തമാക്കി സ്ഥിരീകരിച്ച ഒരു പ്ലാനിങ് തയ്യാറാക്കണം ഒരുപാട് ഷോട്ട് കട്ടുകളും ഒരുപാട് വഴികളും എല്ലാം ഉണ്ടാവും അപ്പം നമ്മള് പോകാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ റീജിയൺ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക അതിനുശേഷം ഏതെല്ലാം സ്ഥലങ്ങളിലൂടെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടാണ് ഈ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് നമ്മുടെ യാത്രയ്ക്ക് എത്ര ദിവസം എടുക്കും നമ്മുടെ യാത്രയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മള് എത്ര പൈസ എത്ര ക്യാഷ് നമ്മൾ കയ്യിൽ കരുതണം അങ്ങനെയുള്ള എല്ലാം എല്ലാം എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം അതുകൂടാതെ നമ്മള് കുടിക്കാൻ വെള്ളം ഭക്ഷണത്തിന് ആവശ്യമായ നമ്മുടെ കയ്യിൽ ചിലവിന് ആവശ്യമായ പൈസ ക്യാഷ് എല്ലാം ഒന്നും ഇല്ലാണ്ട് അതൊന്നും പ്ലാൻ ചെയ്യാണ്ട് അതൊന്നും സെറ്റ് ചെയ്യാണ്ട് നമുക്കൊരു യാത്രയും അതിപ്പോൾ സൈക്കിൾ ആണെങ്കിലോ അല്ലെങ്കിൽ സൈക്കിള് തന്നെ വേണമെന്നില്ല വേറെ എന്ത് യാത്രയാണെങ്കിലും ഇതൊന്നും പ്ലാൻ ചെയ്യാണ്ട് നമുക്ക് നടക്കുകയില്ല